ഹലോ ഹലോ

അ എവിടെ ആയിരുന്നു സ്ഥലം എവിടെ ആയിരുന്നു

ഇപ്പോൾ റൂമിൽ നിങ്ങൾ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് അ ഓക്കെ പിന്നെ വേറെ എന്താന്നുവച്ചാല് വേറെ നമ്മൾ ആരുമായിട്ടും ഇടപഴകാൻ പാടില്ല അ പിന്നെ മാസ്ക് സാനിറ്റൈസർ എപ്പഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ ഒരുമണിക്കൂർ മാസ്ക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യുക ഒരു സ്ഥലത്ത് ശേഖരിച്ച് വച്ചിട്ട് നിങ്ങളെ കൊറോണ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിനുശേഷം അത് കൈകൊണ്ട് തോടാണ്ട് വല്ല ഗ്ലൗസോ എന്തേലും ഇട്ടിട്ട് നിങ്ങൾ തന്നെ കത്തിച്ചുകളയണം വീട്ടുകാരെക്കൊണ്ടൊന്നും തൊടിയിപ്പിക്കരുത് ഇതിൻ്റെ പിന്നെ സാനിറ്റൈസർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ അ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാന്ന് വച്ചുകഴിഞ്ഞാൽ നമ്മള് ലഘൂകരിക്കണം ഭക്ഷണം അതായത് അ ഒരു രാത്രി നമ്മളൊരു ഏഴ് മണിക്ക് കഴിച്ചതിനുശേഷം ഒരു ഒരുമണിക്കൂറ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് അ പിന്നെ എങ്ങനെയാണെന്ന് വച്ചുകഴിഞ്ഞാല് എന്തേലും ഗുളിക തന്നിട്ടുണ്ടായിരുന്നോ അവര് പാരസിറ്റമോൾ തന്നിട്ടുണ്ട് അത് എന്താ പറയുക പനിയുള്ള സമയം നിങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോന്ന് കഴിക്കണം പനി ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി ഈ പാരസിറ്റമോൾ ഓവർ കുടിക്കുന്നത് നമുക്ക് ശരീരത്തിന് നല്ലതല്ല അ അപ്പോൾ പനിയുള്ള സമയത്ത് അത് കുടിക്കണം പിന്നെ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ എന്ന് വച്ചുകഴിഞ്ഞാല് ഭക്ഷണം അവരോട് വാതിൽക്കൽ കൊണ്ടുത്തരാൻ പറയുക അ അത് ഇപ്പോൾ നമ്മൾ തന്നെ ഭക്ഷണം എടുത്ത് കഴിഞ്ഞു നമ്മൾ തന്നെ പാത്രം കഴുകി ക്ലീൻ ചെയ്തതിനുശേഷം മാത്രമേ നമ്മൾ എന്താ ചെയ്യുക ആ പാത്രം എടുത്ത് അവിടെ വെക്കാൻ പാടുള്ളൂ അവരെ അവരെകൊണ്ടു തൊടുവിക്കാൻ പാടുള്ളൂ കേട്ടോ അ പിന്നെ വേറെ ആർക്കെങ്കിലും അടുത്ത ആർക്കെങ്കിലും ഇങ്ങനെ പോസിറ്റീവ് കാണിച്ചായിരുന്നോ ആർക്കും കാണിച്ചില്ലല്ലോ അ ഓക്കെ അപ്പോൾ വേറെ ആർക്കും ആരുമായിട്ടും സമ്പർക്കം അങ്ങനെ ഒന്നും ഇല്ല അല്ലെ വീട്ടുകാർ മാത്രം അവരോടും ഒരു ഒരാഴ്ച ക്വാറൻറ്റയിനിൽ ഇരിക്കാൻ പറയൂ ഓക്കെ ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നാളെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ ആശാ വർക്കറെ വിടാം ഓക്കെ ഓക്കെ ഓക്കെ